ഉൾ നാടുകളിൽ താമസിക്കുന്ന മനുഷ്യർക്ക് ഭൂസ്വത്തവകാശത്തിനു വേണ്ടി അധികാരികളെ സമീപിക്കാം അവ വനം വകുപ്പുദ്യോഗസ്ഥന് അത് പട്ടയം കൊടുക്കുന്ന ജീവിതത്തിൻ്റെ വിഷമിക്ക ജീവിക്കുമെങ്കിൽ പട്ടയം കിട്ടിയ സ്ഥലമാണെങ്കിൽ ജീവിതം രീതി കരിപ്പം പിടിപ്പിച്ച് പോകാനും മുന്നോട്ട് പോകാനും സാധിക്കും അവർക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ സുഖമായി ജീവിക്കാനെ കൃഷി ചെയ്ത് ജീവിക്കണം അല്ലാതെ അതനുസരിച്ച് മുന്നോട്ട് പോകണം ഒരു വീട് ഇല്ലാതെ കഷ്ടപ്പെടുന്നൊത്തിരി ആൾക്കാരുണ്ട് അവർക്ക് വീട് കിട്ടുന്നേ ഭൂമിക്ക് പട്ടയം കൊടു ആഭത്ത് വട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ ഓഫീസുകളിൽ ഇങ്ങനെ തഹസിൽദാരുടെ അവരുടെയും ഇവരുടെയും എല്ലാം ഒപ്പും മുന്നിൽ പോയി കുമ്പിട്ട് നിന്നെങ്കിലും യാതൊരു ഹെല്പ് യാതൊരു അനുഭവം അവരിൽ നിന്നന്ന് ഒരു പ്രശ്ന പരിഹാരവും ഉണ്ടാകുന്നില്ല ഈ തരത്തിൽ ആണ് ഇടുക്കി ജില്ലയിലുള്ള മനുഷ്യർ താമസിക്കുക അതുപോലെ ഗ്രാമപ്രദേശങ്ങൾ അവർക്ക് സുഖമായി ജീവിക്കണമെങ്കിൽ നഗര ജീവിതത്തെ അപേക്ഷിച്ച് എല്ലാം കൃഷി ചെയ്ത് കാലാവസ്ഥക്ക് അനുകൂലമായി വന്നെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാമനിക്കു ഈപ്പോലെ കഴിഞ്ഞ് കഴിഞ്ഞു കണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യരാണ് കർഷകർ അവർ ഗ്രാമീഗത ഗ്രാമത്തിൽ വന്യജീവികളുടെ ശല്യങ്ങളും അതുപോലെ തന്നെ വീട്ടുള്ള എല്ലാ തരത്തിലും അവർ കഷ്ടത അനുഭവിക്കുകയാണ് അവരെ ഒന്ന് കരപിടിപ്പിക്കാനായിട്ട് ഉദ്യോഗസ്ഥർ മുൻകൈ എടുത്തെങ്കിൽ മാത്രമേ സഹായിക്കു സർക്കാർ ഭൂസ്ഭൂമിക്ക് പട്ടയവകാശം നൽകിയാൽ മാത്രമേ അത് പട്ടയം തന്നെ ഭൂമിമേലെ അവകാശം വിഭവിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഇവരെ മുന്നോട്ട് പോകണമെങ്കിൽ സർക്കാർ മനുഷ്യരെ അതനുസരിച്ച് പ്രോത്സാഹിപ്പിച്ച് കൃഷിയെ അഭിവൃദ്ധിപ്പെടുത്താനും ഭൂമി സ്വന്തമാക്കി കൊടുക്കുവാനുമായിട്ട് അവർ നല്ല സമീപനം നട സ്വീകരിക്കണം സമീപനം എടുത്താലെ സാധിക്കുകയുള്ളൂ ജീവിതത്തിൽ നാനാ ധ്രുവങ്ങളിൽ വിദ്യാഭ്യാസ സംബന്ധമായാലും നല്ല സ്കൂളുകൾ വിദ്യാഭ്യാസ രീതിയും വേണമെങ്കിൽ ഗ്രാമപ്രദേശങ്ങൾ സാധിക്കില്ല അതിന് ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കത് സാധ്യമാകുകയില്ല ഗ്രാമത്തിൽ താമസിക്കുന്നവർക്കും അവരുടെ ജീവിത രീതി മെച്ചപ്പെടുത്തണമെന്ന് എല്ലാവർക്കും മോഹമുണ്ട് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യരുമില്ല ഗവൺമെൻറ്റ് അതനുസരിച്ച് ഈ കർഷകരെക്കൂടി ഉയർത്താൻ വേണ്ട എല്ലാ നടപ്പുകളും സ്വീകരിക്കുകയും പൂപ്പർശ സംമ്മന്നക്ക അരിപരിഹാരം കണ്ടെത്തി അതനുസരിച്ച് ജീവിതവെ കർഷകരെ ഉയർത്താൻ വേണ്ടി കാർഷിക മേ കാർഷിക മേഘല നഷ്ടത്തിലാണിപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും മോചനം ലഭിക്കണമെങ്കിൽ ഗവൺമെൻറ്റ് അതനുസരിച്ച് മുൻ കൈ വെച്ച് പ്രവർത്തിക്കണം വനം വകുപ്പ് അതിലിടപെടണം കാട്ടും മൃഗങ്ങളുടെയും കാട്ട് ജന്തുക്കളുടെയും അതുപോലെയുള്ള എല്ലാ അതിൻ്റെയും ഉതിരവത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഇവയെ തുരത്താൻ വേണ്ട നിർദ്ദേശങ്ങൾ സാഹചര്യങ്ങളുമെല്ലാം ഒത്തൊരുക്കി കൊടുത്ത് കർഷകരെ കൈ പിടിച്ചുയർത്തിയാൽ മാത്രമേ ഈ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുകയുള്ളു ഈ പരിഹാരത്തിനു വേണ്ടിയിട്ട് ഈ ഓഫീസുകൾ തോറും കയറി ഇറങ്ങിയാലും അത് ആരും ഗമനിക്കുന്നില്ല അത് കാരണം ആരും ഈ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അവിടെ ജീവിക്കാതിരിക്കാൻ യാതൊരു നിർവ്വാഹവുമില്ല അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് എങ്ങനെ കൊണ്ട് പോകുമെന്ന് അപ്പം എങ്ങനെ കൊണ്ടു പോകുമെന്ന് സാ ആലോചിക്കുന്ന മനുഷ്യരാണ് കൂടുതലും ഗ്രാമപ്രദേശത്തിലുള്ളത് കാലാവസ്ഥ അനുകൂലമായി വിളവുകൾ സമൃദ്ധമായി ഉണ്ടെങ്കിൽ മാത്രമല്ലാതെ അതതു കൊണ്ട് വിളവുകൾക്ക് ന്യായമായ വില നൽകി അവരെ ഉയർത്തി അവരെ അവരുടെ ജീവിത രീതി മെച്ചപ്പെടുത്തുന്ന നിന്ന് വലിയ ഉദ്യോഗസ്ഥന്മാരോട് അപേക്ഷിക്കുന്നു അവർ അതിനുള്ളയുള്ള ഒത്താശകളെല്ലാം ചെയ്ത് തന്ന് മനുഷ്യർക്ക് മനുഷ്യർക്ക് നന്നായി ജീവിക്കാനും നമ്മുടെ മക്കളെയും നല്ല രീതിയിൽ കൊണ്ടു പോകാനും വളർത്താനുമുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് ഈ മേലാധികാരികളോട് അഭ്യർത്ഥിക്കുന്നു ഇവിടെ കുത്തുമ്പോഴല്ലേ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് അതെയോ അതെയോ ഞാൻ ഞാനൊന്നും പറഞ്ഞി ഇന്നെന്നാ തിരിച്ച് ഇത്തരം പറഞ്ഞ് നിർത്തിയ ആ ആ